പരസ്യ വഴികൾ മീഡിയ വഴി പത്രം വഴി അതുപോലെ ബോർഡുകൾ വഴി പരസ്യ പലകകൾ വഴി റോഡ് സൈഡിൽ ഒക്കെ വെച്ച് അതല്ലെങ്കിൽ പുതിയ രീതി അനുസരിച്ച് ചെറുകിട ചാനലുകൾ മുഖാന്തരം അതുപോലെതന്നെ ഫെയ്സ്ബുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംരംഭം ആ ചെറു അങ്ങനെയുള്ള ഇതിലൊക്കെ കൂടിയിട്ട് പരസ്യങ്ങൾ കൊടുത്തിട്ട് അതുപോലെ തന്നെ കൂട്ടായ്മകളിലൂടെ അത് പ്രചരിപ്പിച്ചിട്ടിട്ട് വീക്കിലീലും മാസികളിലും ഒക്കെ പരസ്യം കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്യ വഴികളുണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താന്നൊക്കെ പറഞ്ഞാൽ ഈ വാർത്ത അവതരണ സമയത്ത് അതെല്ലെങ്കിൽ കളികളെ സമയത്തൊക്കെ ടിവിയിലൂടെയും അല്ലെങ്കിൽ ഫോണിലൂടെയും ഒക്കെ വരുന്ന അല്ലേ ഇത് ഉള്ള പ്രദർശിപ്പിക്കുന്നതാണ് കൂടുതൽ ഉള്ള പരസ്യവഴി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് എത്താനും കാണാനും മനസ്സിലാക്കാനുമുള്ള വഴി പിന്നെ വലിയ വലിയ പരസ്യം പത്രങ്ങളിലൊക്കെ കൊടുക്കാം പത്ര പരസ്യത്തിന് നല്ല ഡിമാൻഡ് ഇപ്പോഴുണ്ട് പക്ഷേ അത് കുറഞ്ഞ് വരുകയാണ് കാരണം ജനങ്ങൾ പത്രത്തിൽ നിന്ന് അകന്ന് ഇപ്പോൾ ഒക്കെ കമ്മ്യൂണിക്കേഷനിൽ ടിവിയിലോ അല്ലെങ്കിൽ മൊബൈലിൽ കൂടി ഒക്കെയാണ് ഇപ്പോഴത്തെ പരസ്യം വരുന്നത് അതിനാണ് കൂടുതൽ ആൾക്കാര് അതിൽ ശ്ര ശ്രദ്ധ ചെലുത്തുന്നതും കാണുന്നതും അന്യ മനസ്സിലാക്കുന്നതും അതിൽ കൂടെയാണ് ഇപ്പോൾ ഉദാഹരണം ഇൻസ്റ്റാഗ്രാം ആയാലും ശരി അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും ശരി അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിലുള്ള ഏത് മീഡിയകൾക്കും അതിനുള്ള അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട് പരസ്യത്തെക്കുറിച്ച് പിന്നെ വീക്കിലിയിൽ ഉള്ള പരസ്യം അല്ലെങ്കിൽ മാ മാ പത്രത്തിൽ ഉള്ള പരസ്യം അതൊക്കെ അതിൻ്റെ പിന്നെ നോട്ടീസ് അടിച്ചിട്ട് അടിച്ചിട്ട് ഓരോ വീടുകളിൽ എത്തിക്കൽ അതല്ലെങ്കിൽ കവലകളിൽ ഒക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ട് അങ്ങനെ പരസ്യം ഒരുപാട് രീതിയിലുണ്ട് ഏത് രീതിയിലും വേണമങ്കിൽ ആക്കാം അത് നമ്മൾക്ക് നമ്മുടെ താൽപര്യമനുസരിച്ച് അല്ലെങ്കിൽ കഴിവ് അനുസരിച്ചാണ് അതിൻ്റെ സ് സ് കൂടുതൽ സ്വാധീന സ്വാധീനശക്തി വരുത്താൻ കഴിയുന്നത്